ആ സർ ഇവിടുത്തെ മെയിൻ ഫുഡ് എന്തൊക്കെയാണ് ആ ഇവിടുത്തെ ഏതെങ്കിലും ഫേമസ് ഫുഡ് ഞങ്ങൾക്ക് അറിയില്ല ഇവിടെ ഏതാണ് നല്ലത് എന്നും അപ്പോൾ ഇവിടുത്തെ ആ ആ അപ്പോൾ ഇതിൽ കൂടുതൽ ആൾക്കാരൊക്കെ വരുന്നത് ഏത് ഫുഡ് മേടിക്കാനാണ് ഇവിടെ വരാറ്

എന്നാൽ അതെടുത്തോ ഓർഡർ ഇട്ടോ ഓർഡറുണ്ടോ ഓൺലൈനായിട്ട്

ആ എന്നാൽ ഓൺലൈൻ ഡെലിവെറി നാല് പേർക്ക് സ്ഥലം വയനാട്ടിലാണ് ബത്തേരിയിൽ ആ ആ ആ ആ ഞാൻ പ്ലേസ് പറഞ്ഞുതരാം ആ നാലു പേർക്ക് വേറെ എന്തെങ്കിലുമുണ്ടോ മെയിനായിട്ട് എന്നാൽ ഒരൂ രണ്ട് അൽഫാം മന്തി കൂടി ആവാം ആ ആ രണ്ട് മന്തി പിന്നേ വേറെയെന്താ ഉള്ളത് ആ വെച്ചോ ഐസ് ക്രീം ഐറ്റം എന്തെങ്കിലുമുണ്ടോ ഐസ് ക്രീം ഐറ്റംസ് എന്തെങ്കിലും സൂപ്പ് മതി സ്റ്റോബെറി ഉണ്ടോ ആ ഓക്കെ അത് അതൊരു നാലെണ്ണം ആണോ എന്നാൽ ഓക്കെ ശരി